ഞാനൊരു ഡ്രസ്സ് അല്ലെങ്കില് ഒരു ഇതെടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡ്രസ്സ് ഇത് ചെയ്യുന്നത് ഇപ്പോള് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കില് ഒരു ആറ് വയസ്സുള്ള കുട്ടിക്ക് എൻ്റെ രീതിയിൽ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും എങ്ങനെ ക്ലോത്സ് ഒരു പത്ത് ഫ്രോക്സ് ഞാനിപ്പം തയ്പ്പിച്ചിടുകയാണെങ്കിൽ അത് പത്തും വെറൈറ്റി ടൈപ്പിലായിരിക്കും ഞാനത് തയ്ച്ചിടുന്നത് അതിൻ്റെ പാറ്റേണും അങ്ങനെയുള്ള സംഭവങ്ങളുമെല്ലാം ഓൺലൈനില് അവൈലബിളാണ് അതിൻ്റെ എന്തെങ്കിലും പിന്നെ എൻ്റെയൊരു എൻ്റെ സുഹൃത്തുക്കൾ അവര് എൻ്റെ ഫ്രണ്ട്സ് ഒരു രണ്ട് പേര് അവര് സ്റ്റിച്ചിങ് അല്ലെങ്കില് അവര് ടെയിലറിങ്ങിൻ്റെ ഇതിലുള്ളതാണ് അപ്പം അവര് മെറ്റീരിയൽ എടുത്തിട്ട് അവര് അതില് ഡിസൈൻസും പാറ്റേൺസുമൊക്കെ അവര് ഐഡിയാസ് പറഞ്ഞുതരുന്ന വ്യക്തികളാണ് സോ അത് കാരണം എനിക്കൊരുപാട് എൻ്റെ വർക്ക് എനിക്ക് ചെയ്യാൻ ഭയങ്കരം ഈസിയാണ് അപ്പോള് ഞാൻ ചെയ്യുന്നത് ചില സമയത്ത് ഓൺലൈനില് കൂടെയാണ് നിങ്ങള്ക്കറിയാം ഇപ്പോഴത്തെക്കാലത്ത് സോഷ്യൽ മീഡിയാസ് യൂട്യൂബിലെല്ലാം ഒരു ലഹങ്ക അല്ലെങ്കില് ഒരു മൂന്ന് വയസ്സിൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് അല്ലെങ്കില് ഒരു ഫ്രോക്ക് അല്ലെങ്കിലൊരു ഡ്രസ്സ് മെറ്റീരിയൽ പാവാടയും ബ്ലൗസുമൊക്കെ തയ്പ്പിക്കുന്നത് അവര് ഇത്ര ഇഞ്ച് അല്ലെങ്കില് ഇത്ര സെൻറ്ററിമീറ്റർ എന്ന് പറഞ്ഞിട്ട് അവര് ഓൺലൈനില് യൂട്യൂബിലുമൊക്കെ ഇത് വരാറുണ്ട് ബേസിക്കലി നമ്മളതൊക്കെ ചെയ്തുകഴിഞ്ഞിട്ട് നമ്മള് അതെല്ലാം ബേസിക്കലി എല്ലാം ചെയ്തുകഴിഞ്ഞിട്ട് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കാണുമല്ലോ അത് ചെയ്തുകഴിഞ്ഞ് വരുമ്പോള് എന്തെങ്കിലുമൊരു രീതിയില് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയാണ് വിളിക്കുന്നത് അവര് വന്ന് നോക്കും അവർക്കെന്തെങ്കിലും ഒരു ഐഡിയാസുണ്ടെങ്കിൽ അത് ഞങ്ങള് എൻ്റെ ഇതിലേക്കാണ് ഇടുന്നത് അങ്ങനെയാണ് ഞങ്ങള് ചെയ്യുന്നത് കൂടുതലും ഞാനെൻ്റെ ഓൺലൈനിലും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടുമാണ് ഞാന് ഹെല്പ്പ് ചോദിക്കുന്നത് പിന്നെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങള് കിട്ടുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യയില് തന്നെ ബ്രാൻഡഡായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ ഡയര് വെർസീസ് അങ്ങനെയുള്ള ലക്ഷറി ബ്രാൻഡ് സ്റ്റോർസും ഇവിടെയൊക്കെ നിങ്ങള് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോഴത്തെക്കാലത്ത് ഈ കോട്ടൺ തുണികളോടൊന്നുമല്ല താല്പര്യം കൂടുതൽ അല്ലെങ്കില് ഈ ഗാർമെൻറ് മാതിരിയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളോടല്ല അതായത് കോട്ടൻ നൈലോൺ നൈലോണൊക്കെയാണെന്ന് തോന്നുന്നു എനിക്കിപ്പം തോന്നുന്നു ഇപ്പം ഭയങ്കരമായിട്ടും ഇതായിട്ട് വരുന്നത് കാരണം അധികം വാഷിംഗാണ് വാഷ് ചെയ്തുകഴിഞ്ഞാലും കൂടുതല് നാള് ഈടുനില്ക്കും അത് ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോകില്ല അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പം നമ്മള് ഇവൻ ഡ്രസ് മെറ്റീരിയല് നമ്മള് നോക്കുകയാണെങ്കിൽ ബ്രാൻഡായിട്ട് നമ്മള് നോക്കുകയാണെങ്കില് ഞാൻ ബെസ്റ്റായിട്ട് നോക്കുന്നത് ഡയറും വേഴസൈസുമാണ് ഞാന് നോക്കുന്നത് കാരണം അതൊക്കെ നല്ലയൊരിതാണ് പിന്നെ പ്രാഡാ ഇതൊക്കെയെന്ന് പറയുമ്പോള് നല്ല കമ്പനീസ് നല്ല ബ്രാൻഡഡ് കമ്പനീസാണ് ലക്ഷറി കമ്പനീസാണ് നമ്മുടെ ഇന്ത്യയില് തന്നെയുള്ളത് സോ ഇവരുടെയൊക്കെ നിങ്ങളൊരു ഔട്ട്ഫിറ്റ് അല്ലെങ്കില് നിങ്ങള് നോക്കുകയാണെങ്കില് നിങ്ങള്ക്ക് മനസ്സിലാകും വേറെ വേറെ എസ്പെഷ്യലി ഫോർ ലേഡീസിനും പിന്നെ കുഞ്ഞുങ്ങള്ക്ക് അതും പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങള്ക്ക് ഇപ്പോഴത്തെക്കാലത്തുള്ള ക്ലോത്തിങ് വെസ്റ്റേൺ വെയർ ഔട്ട്ഫിറ്റിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇപ്പോള് ഡിസൈൻസ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പോള് അത് വെറൈറ്റി ഓഫ് ഇത് ഈ ഡിസൈൻസും ഈ ഓൺലൈനിലൊക്കെ അവൈലബിളാണ് അല്ലെങ്കില് ഇവരുടേതായിട്ടുള്ള പ്രത്യേകിച്ച് വെബ്സൈറ്റും ആപ്പുമുണ്ട് അതിലും നമുക്ക് വേണമെങ്കില് കയറി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കാം